ഞങ്ങൾ മൃഗങ്ങളെ വാങ്ങുന്നത് പെറ്റ് ഷോപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ മൃഗങ്ങളെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നുമാണ് കൂടുതലായിട്ട് അവിടെ നിന്നും വലിയ നമ്മൾ മൃഗങ്ങളെ മേടിക്കുമ്പോൾ നല്ല ഗുണ നിലവാരത്തിലുള്ള മൃഗങ്ങളെ നമുക് ലഭിക്കും ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള കടകളിൽ നിന്നു മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണ നിലവാരം വളരെ കുറവായിരിക്കും ചിലപ്പോൾ അതിന് അസുഖങ്ങളുണ്ടാകാൻ ഉള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ അതുകൊണ്ടു തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മൃഗങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് ഏത് തരം മൃഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നതിനു പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തു മൃഗങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മേടിക്കുന്നത് പിന്നെ നമുക്ക് ജീവിതോപാധി തരുന്ന മൃഗങ്ങളെ നമ്മൾ മേടിക്കാറുണ്ട് ആ വളർത്തു മൃഗങ്ങളെന്നു പറയുമ്പോൾ പട്ടി പൂച്ച ഇങ്ങനെയുള്ള മൃഗങ്ങളെയാണ് നമ്മൾ കൂടുതലായും മേടിക്കുന്നത് പിന്നെ ഇവ നമുക്ക് ഒരു നല്ല ഒരു കാഴ്ച്ചക്ക് ഒരു ഇതും പിന്നെ നമ്മളെ കൂടുതലായിട്ടും സഹായിക്കാറുണ്ട് വളർത്തു മൃഗങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള വീടുകൾ കൂടുതലായിട്ട് അവർക്ക് ഒരു സഹായം നൽകുന്നതിനു വേണ്ടി വളർത്തു മൃഗങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് ഈ വളർത്തുമൃഗങ്ങൾ പല രീതിയിലുള്ള വില വിലയുള്ള വളർത്തുമൃഗങ്ങളുണ്ട് പല രീതിയിലുള്ള വില പല പല രീതിയിലുള്ള പട്ടിക നിങ്ങൾക്ക് പല രീതിയിലുള്ള വിലയാണ് നമ്മൾ ഒരു ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പഗ്ഗ് പോലുള്ള പട്ടികൾക്ക് അതിനു ഏകദേശം ഒരു പന്ത്രണ്ടായിരം ടു പതിനഞ്ചായിരം രൂപ വരെ വില വീഴുന്നുണ്ട് ഇനി അതുകൂടാതെ ഡോവർമാൻ പോലെയുള്ള പട്ടികൾക്ക് ഏകദേശം ഏഴായിരം ടു പതിനായിരം രൂപ വരെ അതിൻ്റെ പട്ടികൾക്ക് ഓരോ വില വരുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള വിലയിലുള്ള പട്ടികളാണ് നമ്മുടെ ഈ ഒരു വളർത്തു മൃഗങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വളർത്തു മൃഗങ്ങൾക്ക് കൂടുതലായിട്ട് ഇത്ര വില വരാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും നല്ല ഒരു ഒരു ബ്രീഡ് അല്ലെങ്കിൽ ഒരു ഇനത്തിലോട്ടുള്ള വളർത്തു മൃഗങ്ങളാണ് കൂടുതലായിട്ടും ഈ ഈ ഈ വളർത്തു മൃഗങ്ങളുടെ വില്പനയിലൂടെ നമുക്ക് വളരെയേറെ രീതിയിൽ പണം നമുക്ക സമ്പാദിക്കാൻ പറ്റും വളർത്തു മൃഗങ്ങളെ കൂടുതലായിട്ടും ഈ പൂച്ച തുടങ്ങിട്ടുള്ള വളർത്തുമൃഗങ്ങൾ നമുക്ക് കച്ചവടം ചെയ്തുകൊണ്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതോപാധിയായിട്ട് ഇതിനെ സ്വീകരിക്കാൻ പറ്റും യുവജനങ്ങൾ പലരീതിയിൽ ജീവിതോപാധിയായിട്ട് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ നമുക്ക് ഒരു കച്ചവട തന്ത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ നമ്മളെ നമ്മൾക്ക് നമ്മുടെ ഒരു ജീവിതോപാധിയായിട്ട് സ്വീകരിച്ചു കൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാൻ അങ്ങനെ നമുക്കൊരു ജീവിതം നമുക്കും ജീവിതോപാധിയായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും